ഫോട്ടോ മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാറുണ്ട് അതുപോലെ അവരെനിക്കും എടുത്ത് തരാറുണ്ട് അതങ്ങനെ ചെയ്യാറുണ്ട് അതിൻ്റെ പിന്നിൽ രസകരമായ ഒരു കഥകളൊന്നും പറയാനില്ലെങ്കിലും കൂടെ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കാര്യം ഓർക്കുന്നത് ഞങ്ങൾ എപ്പോഴും നല്ല ഭംഗിയുള്ള വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിശേഷദിവസങ്ങളിൽ ഞങ്ങൾ ഫോട്ടോസെടുക്കും സെൽഫീസെടുക്കും അല്ലെങ്കിൽ ഇൻറ്റിവിജ്വലായിട്ടുള്ള ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറി മാറി എടുക്കലൊക്കെ പതിവാണ് അപ്പം ഞങ്ങൾ ഒരിക്കലങ്ങനെ ഇൻഡസ്ട്രിയൽ വിസിറ്റിൻ്റെ ഭാഗമായിട്ട് എറണാകുളം റെഡാർ ആസ്ട്രോണമി സെൻ്ററിൽ പോയിരുന്നു അപ്പം അവിടെ വെച്ചിട്ട് കുട്ടികളെ ക്ലാസിനു കയറ്റിയതിനു ശേഷം രണ്ടു മണിക്കൂർ നീണ്ട സെമിനാറാണ് അപ്പം ഞങ്ങൾ പുറത്ത് ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് നടക്കു ഇരിക്കുന്ന കൂട്ടത്തിൽ ഇതേപോലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എൻ്റെ വാട്സാപ്പിൻ്റെ ഡി പിയന്നെ ഇട്ടിട്ട് കുറെ കാലമായി നല്ലൊരു ഫോട്ടോയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ പരതി നടന്ന് ഒരു മരത്തിൻ്റെ ചോട്ടിൽ വെച്ച് ഒരു ഫോട്ടോ എടുത്തു എന്താന്നറിയില്ല ആ ഫോട്ടോയ്ക്ക് വളരെയധികം കമൻറ്റ്സ് ഇൻസ്റ്റയിലിട്ടപ്പഴാണെങ്കിലും വാട്സാപ്പിലിട്ടപ്പഴാണെങ്കിലും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വന്നു അവൾ ഒരുപാട് എന്നെ അഭിനന്ദിച്ചു അപ്പം ഇങ്ങനെയാണ് പറഞ്ഞത് അമ്മ പോലും തിരിച്ചറിയില്ല അത്ര ഭംഗിയിലുള്ള ഫോട്ടോയാണ് ഞാൻ ജീവിതത്തിൽ ഇത്ര നല്ലൊരു ഫോട്ടോ എനിക്ക് എടുത്തു തന്നിട്ടില്ല്യാ ആരും എന്നാണ് പറഞ്ഞത് അതാണ് ഒരു ഓർക്കാനായിട്ടുള്ള ഒരു ഞാൻ എടുത്തു കൊടുത്ത ഫോട്ടോയിൽ എനിക്കൊരു കിട്ടിയിട്ടുള്ള ഒരു പ്രശംസ എന്ന് പറയുമ്പോൾ അതിനപ്പുറം വേറെ കഥകളൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല